പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ ടാപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മള് ഭയങ്കരായിട്ട് പുഷ് ചെയ്ത് ഇതാക്കി പ്രസ്സൊക്കെ ചെയ്താലെ നമുക്ക് വെള്ളമൊക്കെ കിട്ടി കൊണ്ടിരുന്നത് പിന്നെ നമ്മള് എവിടെയെങ്കിലൊക്കെ പോയിട്ട് കോരും അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് അങ്ങനെ കുറെ ബുദ്ധിമൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മള് പണ്ട് കാലത്ത് വെള്ളം വരുമ്പം ഇപ്പം എന്ന് പറയുമ്പോൾ ഡയറക്ട് നമ്മുടെ വാട്ടർ ടാങ്കിലോട്ട് വരും അതിൽ നിന്ന് നമുക്ക് പൈപ്പ് വഴി ഇതാക്കാം വേണമെങ്കിൽ ഡയറക്ട് പൈപ്പിലോട്ടും ഇങ്ങനെയൊക്കെ കണക്ഷൻ ചെയ്യാൻ പറ്റും അതിലൂടെ നമുക്ക് ഇപ്പം പെട്ടന്ന് തന്നെ എന്തേലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളും വരുമ്പോൾ അങ്ങനെ എടുക്കാം പണ്ടെന്നു പറയുമ്പോൾ അത്യാവശ്യം കാര്യം വരുമ്പോൾ ബക്കറ്റെടുത്ത് എവിടെയാണോ ടേപ്പ് കുടിവെള്ളം കിട്ടുന്നത് അവിടെ പോയി നമ്മളത് മുക്കിക്കൊണ്ടുവന്ന അങ്ങനെ കുറെ സമയം വേസ്റ്റ് ആകും ആയിരുന്നു ഇപ്പം എന്ന് പറയുമ്പോൾ അതൊന്നു ഇല്ലാണ്ടായി എരട്ടി നമ്മുടെ ടാങ്കിൻറകത്തേക്കു തന്നെ വെള്ളം വരും അതുകൊണ്ട് നമുക്ക് വളരെ ഒര് ആണ് ഇപ്പം ഉള്ളത് പണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലായിരുന്നു പോയിട്ട് അത് കുറെ നേരം പ്രസ്സ് ചെയ്ത് കുറെ ക്യൂ ഒക്കെ നിന്ന് അങ്ങനെയൊക്കെയായിരുന്നു വെള്ളം കിട്ടി കൊണ്ടിരുന്നത് ഇപ്പം അതിൽ നിന്നൊക്കെ മാറി നമ്മള് പൈപ്പ് ഇപ്പം ഡയരക്ട് വീട്ടിലോട്ട് കണക്ഷനുണ്ടാകും അതിലൂടെ വേണമെങ്കിൽ നമുക്കിപ്പം ബാത്രൂമില് പോയി പണി ഉണ്ടായാൽ ഡയരക്റ്റ് അതിന്റെ അകത്തുണ്ടാകും അതുകൊണ്ട് അതിലൂടെ നമുക്ക് നല്ല യൂസെയ്ഗായിട്ടുള്ള കാര്യമാണ്